കർഷകര് വീട്ടിൽ വളർത്തുന്ന കോഴികളാണ് ഗ്രാമലക്ഷ്മി മുട്ടക്കോഴി കരിംകോഴി തുടങ്ങിയവ കൊത്ത് കോഴി അങ്ങനെയെല്ലാം വിവിധതരത്തിലുള്ള കോഴികളുണ്ട് അവയെല്ലാം ശരിയായ രീതിയിൽ തിരഞ്ഞെടുത്ത് അവരുടെ സമയത്തിന് സമയ സമയത്തിന് തന്നെ ഇൻജെക്ഷനും അല്ലങ്കിൽ പ്രതിരോധ വാക്സിനെല്ലാം കൊടുക്കുകയാണെങ്കിൽ കോഴികളും ഒന്നും നശിക്കാതെ അത് വളരുകയും അതിൽ നിന്ന് നമുക്ക് ലാഭം കിട്ടുകയും ചെയ്യും മുട്ടക്കോഴി ആണെങ്കിൽ ഡെയിലി മുട്ടയിടും അതേ സമയം കരിംകോഴി ഗ്രാമലക്ഷ്മി എന്നീ കോഴികൾ എല്ലാ ദിവസവും മുട്ടയിടില്ല അവര് കുറെ ദിവസം മുട്ടയിട്ട് തുടർച്ചയായി മുട്ടയിട്ട് കഴിഞ്ഞാൽ പിന്നെ കുറെ ദിവസം അവർ ചീറുകാന്നൊരു പരിപാടിയുണ്ട് അതായത് അതില് മുട്ട വച്ച് കൊടുത്താൽ അവര് വിരിയിച്ച് കിട്ടും അങ്ങനെ ആ സമയങ്ങളിൽ ആ കോഴികള് വെറുതെ ഇരുന്ന് ഭക്ഷണം ഒന്നും എടുക്കാതെ പത്ത് ഇരുപത്തഞ്ച് ദിവസം ഭക്ഷണങ്ങളൊന്നും എടുക്കാതെ വെറുതേ ഇരിക്കുകയും ഈ സമയത്തിന് ശേഷം മാത്രമേ വീണ്ടും ഭക്ഷണം എടുക്കുകയും മുട്ടയിടുവൊക്കെ ചെയ്യുകയുള്ളൂ ഓരോ കോഴിയും തമ്മിൽ വളരെ വ്യത്യാസമുണ്ട് കരിംകോഴിയണേൽ മൊത്തം അതിൻ്റെ എല്ലാ ഭാഗങ്ങളും കറുപ്പായിരിക്കും അതേ സമയം ഗ്രാമലക്ഷ്മി ഗിരിരാജ കോഴി എന്നീ കോഴികളെല്ലാം വളരെ അധികം തൂക്കം ലഭിക്കുന്നതും വളരെ അധികം വലിപ്പം വക്കുന്നവയുമാണ്